ഒന്നിലധികം തവണ ആവര്ത്തിച്ച് വായിച്ചിട്ടുള്ള പുസ്തകം ആല്ക്കെമിസ്റ്റാണ് പൌലോ കൊയ്ലോ എഴുതിയ ആല്ക്കെമിസ്റ്റ് അതിന്റെ കാരണം അത് ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയുള്ള ഒരു ഇടയ ബാലന്റെ യാത്രയാണ് തീര്ച്ചയായിട്ടും വീണ്ടും വീണ്ടും വായിക്കാനുള്ള കാരണം ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രതിസന്ധികള് നേരിടുമ്പോൾ അല്ലെങ്കില് ജീവിതത്തില് പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ഇനിയും ഒരുപാട് യാത്ര ചെയ്യാന് ഉണ്ട് എന്ന തിരിച്ചറിവിലേക്കും നമുക്ക് നമ്മുടെ സ്വപ്നത്തിന് പിന്നാലെ വിടാതെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ തീര്ച്ചയായിട്ടും ആ സ്വപ്നങ്ങളെ നേടിയെടുക്കാന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്കും നമ്മെ നയിക്കുന്ന ഒരു പുസ്തകമാണ് ആല്ക്കെമിസ്റ്റ് എന്ന പുസ്തകം ആ യാത്രയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്ന് പോകുന്ന ഇടയ ബാലന് സാൻറ്റിയാഗൊ അവന്റെ യാത്രയും ആ പ്രതിസന്ധികളെ അതിജീവിക്കുമ്പോള് അതിജീവിക്കാനുള്ള കരുത്തുമൊക്കെ നമുക്ക് വാക്കുകളിലൂടെ കാണുവാന് സാധിക്കും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സിനിമ കാണാനായിട്ട് തീര്ച്ചയായിട്ടും താൽപ്പര്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇറങ്ങിയ ആട് ജീവിതം പോലെ ആല്ക്കെമിസ്റ്റ് എന്ന ഒരു പുസ്തകം പൗലോ കൊയ്ലോയുടെ പുസ്തകത്തെ അത് സിനിമയാക്കിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മലയാള ഭാഷയിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ മികച്ച ഫ്രെയിമുകളോടെ മികച്ച പശ്ചാത്തല സംഗീതത്തിന്റെ അകമ്പടിയോടെ മികച്ച അഭിനയ മുഹൂര്ത്തങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് ആ സിനിമയെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കും